ഇപ്പോൾ കടുത്ത വേനലാണ് നമ്മൾക്ക് ദാഹിക്കുന്നത് പോലെ തന്നെ ചെടികൾക്കും നല്ല ഒരു വരൾച്ച അനുഭവപ്പെടുന്ന കാലമാണ് പറമ്പുകളിൽ സ്പ്രിങ്ക്ലർ വയ്ക്കുക ആണെന്നുണ്ടെങ്കിൽ ഫുൾടൈം അത് ഓണായി കിടക്കുമ്പോൾ ഒരു തണുത്ത ഒരു അന്തരീക്ഷമായിരിക്കും അപ്പോഴത്തെ ആ സമയത്ത് ചെടികളാണെങ്കിലും തെങ്ങുകളാണെങ്കിലും നല്ല ഉഷാറിൽ തന്നെ നിൽക്കും തെങ്ങുകൾക്ക് ഈ സ്പ്രിങ്ക്ലറിനെക്കാളും നല്ലത് പമ്പ് വച്ച് ഹോസ് വച്ച് നനയ്ക്കുക ആവും അല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ അതിൻ്റെ പട്ട ഓലയും പട്ട ഇടിഞ്ഞു വീഴാനും അതേ പോലെ തന്നെ അത് കവുങ്ങ് അതിൻ്റെ ഒക്കെ പട്ട ഇടിഞ്ഞു വീഴാനും അതിൻ്റെ പൂക്കൾ കൊഴിയാനുമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചെടികളാണെങ്കിൽ രണ്ടു നേരമെങ്കിലും ചെടിക്ക് നനക്കുക നട്ടുച്ച സമയത്ത് നനക്കുന്നത് എപ്പോഴും ചെടിക്ക് ദോഷം ചെയ്യും കാലത്തും അതുപോലെ വൈകിട്ടും നനക്കുകയാവും നല്ലത്